ചിത്രകലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സാധാരണയായി ഉണ്ടാകുന്ന വീഴ്ച്ചകൾ നമ്മൾ അധികം ഈ ചിത്രത്തെപ്പറ്റി അറിയാത്തവരുടെ ഇടയിലേക്ക് അത് പഠിക്കുവാനായിട്ട് പോകുന്നത് ഏറ്റവും വലിയ വീഴ്ച്ചയാണെന്ന് തോന്നും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളതോ അല്ലെങ്കിൽ ആ ഈയൊരു കലയിനെപ്പറ്റി അത്യാവശ്യം നന്നായി അതിലേക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ അടുത്തുപോയിട്ട് പഠനങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് പറയുക എങ്കിൽ അത്രയും വീഴ്ച്ചകൾ ഒഴുവാക്കാം അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയവും അതുപോലെത്തന്നെ പൈസയും നഷ്ടത്തിലാവുമെന്നു മാത്രമേ പറയാൻ പറ്റു അതിനുശേഷം പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു കല കലാകാരൻ എത്രത്തോളം പരിശീലനം ആവശ്യമാണെന്ന് ചോദിച്ചാൽ അവരവരുടെ ജീവിതത്തിൽ മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പരിശീലനം എന്നുപറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നതല്ല അവരുടെ ജീവിതകാലം മുഴുവൻ അവർ അത് മീൻസ് ഒരു ഇതിൽ നിന്നിട്ട് കാണുന്നതിൽ നിന്നെല്ലാം പഠനങ്ങൾ അല്ലെങ്കിൽ അറിവുകളെ നേടിയെടുക്കുന്നവരാണ് ഒരു യഥാർത്ഥ കലാകാരൻ എന്നു പറയുന്നത്